ഇപ്പം ഞങ്ങളുടെ പ്രദേശത്ത് കൂടുതലായിട്ടും ഈ അതായത് പ്രകൃതി വിഭവം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വലിയ രീതിയിലുള്ള വിഭവങ്ങൾ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രാഷൻ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കൃഷിയോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് അപ്പം അതൊരു പ്രകൃതി വിഭവം ആണ് കാരണം നമ്മളത് നട്ട് കഴിഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് വരുന്ന ഒരു ഫലമായിട്ടാണ് ഉള്ളത് അപ്പം അത് നമുക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ പുറത്ത് കൊണ്ട് വിൽക്കാം പിന്നെ അല്ലെങ്കിൽ നമുക്ക് തന്നെ കഴിക്കാനുള്ള കാര്യങ്ങൾ ഒക്കെ അതിനകത്തു നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പം അത് നമുക്ക് ഒരു പ്രകൃതി വിഭവം ആയിട്ട് വേണമെങ്കിൽ കരുതാം പിന്നെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം പേരക്ക അല്ലെങ്കിൽ മാങ്ങ തേങ്ങ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രകൃതി വിഭവങ്ങളാണ് അതൊക്കെ നമുക്ക് കൃഷി ആയിട്ടും വേണമെങ്കിൽ ചെയ്യാം അല്ലാണ്ട് നമുക്ക് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കും വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അല്ലാത്തപ്പം അതായത് ഒരു ബിസിനസ്സ് ഒക്കെ ആയിട്ട് നടത്തണമെങ്കിൽ നമുക്ക് ഇതൊക്കെ വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളു പ്രകൃതി വിഭവങ്ങൾ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ നമുക്ക് സുഗമമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളു പിന്നെ ഇഞ്ചി കൃഷി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പ്രകൃതി വിഭവങ്ങളാണ് വാഴ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ബിസിനസ്സ് പരമായിട്ടും വേണമെങ്കിൽ ചെയ്യാം